ഗതാഗത സൗകര്യങ്ങളുടെ അഭാവം ആരോഗ്യ സംരക്ഷണത്തെ ബാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ബാധിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം പെട്ടെന്നിപ്പൊരു നെഞ്ച് വേദന കാര്യങ്ങൾ വന്നുവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് നമുക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ ഭയങ്കര ദൂരവും കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് അതായത് നമുക്ക് നല്ല റോഡ് സൗകര്യങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പിന്നെ അതായത് നമുക്ക് മരണത്തിന് വരെ അത് എത്താനുള്ള സാദ്ധ്യതയുണ്ട് അതു കൊണ്ട് തന്നെ നമുക്ക് അടുത്ത് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെയുണ്ടെങ്കിൽ നമുക്ക് അങ്ങനൊരു അതായത് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെയെന്ന് പ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ വന്നു ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് അതായത് ഏതെങ്കിലും ഊട് വഴികളിലൂടെയോ അതായത് നല്ല മെയിൻ റോഡൊന്നും അല്ലാത്ത സ്ഥലത്തൊക്കെയാണ് ആക്സിഡൻ്റ് നടക്കുന്നതെങ്കിൽ തന്നെ എങ്കിലും പിന്നെ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റൽ കാര്യങ്ങളിലൊക്കെ ആ അവരെ കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര വലിയ ആസിഡൻ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ അവിടെ എത്തു എത്തുമ്പോഴത്തേക്കും ചിലപ്പം മരിച്ചിട്ടുണ്ടാകും ചിലൊർക്കൊക്കെ ഇപ്പം നമ്മുടെ ചില ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പം പറയുമല്ലോ അവർ അതായത് അഞ്ച് മിനിറ്റ് മുൻപ് കൊണ്ട് വരികയാണെങ്കിൽ രക്ഷ രക്ഷപ്പെടുമെന്ന് അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നടക്കും അതാണ് മെയിൻ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ